എടാ പിന്നില്ലേ എനിക്കൊരു ഡൗട്ടുണ്ട് ഞാൻ ഈ ഇടക്ക് പുതിയതായിട്ടൊരു നമ്പറെടുത്തു അപ്പം ഈ നമ്പരാ ഞാനീ പല കാര്യങ്ങൾക്കും ഇപ്പോൾ കൊടുക്കുന്നത് അങ്ങനെ അതുകൊണ്ട് എനിക്കീ ഈ നമ്പർ നമ്മുടെ ഡിജി ലോക്കാറില്ലേ അതിനകത്തും ഒന്നപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട് ആ പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഞാനൊരുപാട് എടുത്തു നോക്കി ആ ഈ ഗൂഗിളിൽ യൂട്യൂബിൽ ഒക്കെ നോക്കി പക്ഷേ അവർ പറയുന്നത് ആയിട്ട് എനിക്ക് എനിക്കങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല അതിൻ്റെ ഓരോരോ രീതികളുണ്ടല്ലോ എങ്ങിനെയാണ് ചെയ്യേണ്ടത് അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ നമ്മുടെ കോളേജിലായിരുന്നാലും ഈ ഡിജി ലോക്കറിലെ ഈ നമ്പർ ആഡ് ചെയ്തിരുന്നാൽ അല്ലേ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും പെട്ടെന്നു കിട്ടത്തില്ലല്ലോ എന്തെങ്കിലും അറിയിപ്പുകളോ അല്ലെങ്കിൽ അതിന് ഇവിടെ കോളേജിനെ സംബന്ധിച്ചോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയ വിനിമയം നടത്താനോ അങ്ങനെ ഒന്നും നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ടെനിക്ക് ഫോൺ നമ്പർ അതിനകത്തോട്ടൊന്ന് ആക്കണമെന്നുണ്ട് ഡിജി ലോക്കറിലോട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട് അന്നിതുപോലെ ഞാൻ നിന്നോടു ചോദിക്കാൻ കാര്യം അന്ന് നീ ഇതുപോലെ എന്തോ ഡിജി ലോക്കറിൻ്റെ കാര്യം നീ ചെയ്തതായിട്ട് എന്നോടു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നീ ഓർക്കുന്നുണ്ടോയെന്നെനിക്കറിയില്ല അപ്പോൾ എനിക്കത് ഞാൻ അങ്ങനെ ഈ ഇപ്പോൾ ഞാനീ റൂമിലിങ്ങനെ കിടക്കുമായിരുന്നു വെറുതെ ഞാൻ കിടക്കുമായിരുന്നു അപ്പം ഈ കാര്യം ആലോചിച്ച് ഇത് എന്തു ചെയ്യും എങ്ങനെ ചെയ്യും ഒന്നും അറി അറിയില്ലല്ലോ അങ്ങനെ നിന്നോടു ചോദിക്കാമെന്നു വിചാരിച്ചു നിനക്കറിയാമായിരിക്കുമല്ലോ നീ എങ്ങനെയാണ് അതു ചെയ്തേ എനിക്കതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് നീ വോയിസ് മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ നീ ടൈം കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി സമയം കിട്ടുമ്പോൾ ഒന്നു വിളിക്കുമോ അല്ലേല് അല്ലാതെ മെസ്സേജ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്താൽ മതി ഞാൻ നോക്കാം നീ കറക്റ്റായിട്ടൊന്നു പറഞ്ഞു തരണേ എനിക്ക് ഇപ്പോഴേ